ജലമലിനീകരണം എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായതെന്നു പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും കൂടുതലും തോടുകളിലും പുഴയിലുമൊക്കെ ഉണ്ടാവുക എന്നാൽ അതൊക്കെ വൃത്തികെട്ട വെള്ളമാവുന്നത് നമ്മളെപ്പോലുള്ളവർ ഈ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നത് മൂലമാണ് നമ്മളിപ്പോൾ പറഞ്ഞ മീനിൻ്റെ കാര്യത്തിൽത്തന്നെ മീനുകൾ ജീവിക്കുന്നത് തന്നെ ഈ വെള്ളത്തിലാണ് എന്നാൽ ഇതുപോലത്തെ വേസ്റ്റായിക്കോട്ടെ എല്ലാം കൊണ്ടുവരുന്നതിലൂടെ ഈ മീനുകൾ തന്നെ ചത്തു പോവുകയും വെള്ളം തന്നെ ചീത്തയാവുകയാണ് ചെയ്യുന്നത് ഭംഗിയുള്ള ശുദ്ധമായ വെള്ളം ഈ വേസ്റ്റിടുന്നതിലൂടെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെതന്നെ വെള്ളം വറ്റുന്നു അങ്ങനെ ഒരുപാട് വരൾച്ചകൾ സംഭവിക്കുന്നു സുന്ദരമായ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കേണ്ട നമ്മുടെ ഡാം ആയിക്കോട്ടെ തോടായിക്കോട്ടെ എല്ലാം വരണ്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് വെറും കല്ലും മരങ്ങളൊക്കെ മാത്രം വന്നു കിടക്കുന്നപോലെ ആയിരിക്കുന്നു അതൊക്കെ ജലമലിനീകരണത്തിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ പറയാനുള്ള എന്താണെന്നു വെച്ചാൽ നമ്മൾ പരമാവധി നമ്മുടെ കുളത്തേയൊക്കെ സംരക്ഷിക്കണം അതുപോലെതന്നെ ഡാമായിക്കോട്ടെ നമ്മുടെ തോടായിക്കോട്ടെ നല്ല വൃത്തിക്കിടണം നമ്മളെന്തിനാണ് അതിനെ നശിപ്പിക്കാൻ നോക്കുന്നത് ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി അതിലിടേണ്ട ഒരാവശ്യവുമില്ലല്ലോ അതിനായിട്ട് ഒരുപാട് പദ്ധതികളിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ വെള്ളത്തിലൊക്കെക്കൊണ്ട് വേസ്റ്റിടൽ നിർത്തുക എന്നാലേ നമ്മുടെ വെള്ളം നല്ല സുന്ദരമായി കിടക്കുകയുള്ളൂ